ഇപ്പോൾ ഞാനെന്നു പറയുന്ന ഒത്തിരി കുക്ക് ചെയ്യുന്ന കൂട്ടത്തിലൊന്നും അല്ല ഇടയ്ക്കെങ്ങാനും അടുക്കളയിൽ കയറി ചായ വയ്ക്കും അങ്ങനെയുള്ള ആ ഒരു ടൈപ്പാണ് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചിക്കൻ കറി ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് അത് യൂട്യൂബിൽ ജസ്റ്റ് ഒരു ഷോർട്ട്സ് കണ്ടിട്ട് അതിൻ്റെ വീഡിയോ ഫുൾ ലിങ്ക് കൊടുത്തു നോക്കി അങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയൊരു ഫുഡ്ഡാണ് ചിക്കൻ കറി എന്നു പറയുമ്പോൾ അതു ഫസ്റ്റ് ടൈമായിയിരുന്നു ഞാൻ ചെയ്തത് ആദ്യമായിട്ട് അടുക്കളയിൽ കയറിയതിൻ്റെ ഒരിത് കാരണമായിരിക്കാം അതിൻ്റെ വേണ്ട വിധത്തിലുള്ള മസാല കാര്യങ്ങളാണെങ്കിലും അതിനിപ്പോൾ എന്തൊക്കെ ആവശ്യമാണോ അതിൽ ഒരു കാൽ ഭാഗവും ചേർത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ബാക്കിയുള്ളതൊക്കെ വളരേ എന്താ പറയുക ചേർക്കാം ചേർത്തു എന്നാലും അതു വളരെ അധികം കൂടുതലായിപ്പോയി അങ്ങനെയൊരു സിറ്റുവേഷനായിരുന്നു ഫസ്റ്റത്തെ ആ ഒരിത് കാരണങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ ചിക്കൻ കറി വലിയ രീതിയിലുള്ള ടേസ്റ്റ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ട് ഉണ്ടായിരുന്നില്ല ഒരു ചിക്കൻ കറി ആണെന്നു പറയാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയും ഒരു വൃത്തികെട്ട ടേസ്റ്റായിരുന്നു അതിന് പറയുമ്പോൾ